ഇന്ത്യയിലെ ചില പ്രശസ്ത നൃത്ത ശൈലികളാണ് കഥകളി കുച്ചിപ്പിടി മോഹിനിയാട്ടം എന്നിവയല്ല പക്ഷേ ഇന്ന് കഥകളിയും കുച്ചിപ്പിടിയും അങ്ങനെയുള്ളതൊക്കെ വളരെ വിരളമായിട്ടേ നമ്മൾ കാണാറുള്ളൂ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ മൊബൈലിലോ ടീ വിയിലൊക്കെ കാണുമ്പോഴാണ് അങ്ങനെയൊരു അങ്ങനത്തെ നൃത്തരൂപങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുതന്നെ മനസ്സിലാകുന്നത് ഇന്നു വളരെ വിരളമായിട്ടേ ഈ ഈ നൃത്തരൂപങ്ങളൊക്കെ കാണുന്നുള്ളൂ ഇന്നതിനുപകരം കൂടുതലായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഗാനമേള സിനിമ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും എല്ലാവരും ശ്രദ്ധ പുലർത്തുന്നത് കൂടുതലായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നതും കാണുന്നതും ഇതു തന്നെയാണ് ഇതെല്ലാം നമ്മുടെ ഇതിൽ നമ്മുടെ ഈ ഈ രാജ്യത്തിൽ നിന്നുതന്നെ കൂടുതലായിട്ട് കുറഞ്ഞു പോയിരിക്കുന്നു പണ്ടൊക്കെ കഥകളി എന്നു പറയുന്നത് എന്തെങ്കിലും ഒരു പരിപാടികൾ ഫംഗ്ഷൻസ് നടന്നുകഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും കഥകളി ബാലെ നാടകം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു ഗാനമേള അങ്ങനെയുള്ള സംഭവങ്ങളിലോട്ട് മാറിപ്പോയി അതാണ് നൃത്തരൂപങ്ങളൊക്കെ വളരെയധികം മാറ്റം സംഭവിച്ചു ഇപ്പം സ്കൂളുകളിലൊരു പരിപാടി നടക്കുമ്പോഴാണ് നാടോടി നൃത്തം കഥകളി കഥ മോഹിനിയാട്ടം അങ്ങനെ ഉള്ള രൂപം നൃത്തങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അല്ലാതൊരു നൃത്തങ്ങളൊന്നും ഇപ്പം കാണാനില്ല പണ്ടൊക്കെ നൃത്തങ്ങളൊക്കെ ചെയ്യുന്നവർ അവരുടെ ജീവിതം നൃത്തത്തിനായിട്ട് മാത്രം മാറ്റി വയ്ക്കുന്ന ആൾക്കാരായിരുന്നു അങ്ങനെ എത്രയോ നർത്തകിമാരും നർത്തകന്മാരും നമ്മുടെ ഇടയിൽ കാണാറുണ്ട് അവരെല്ലാം അവരുടെ ലൈഫ് തന്നെ നൃത്തത്തിനായിട്ട് ഒഴിഞ്ഞ് വച്ച് അവർ അവരുടെ ജീവിതം മൊത്തമായിട്ട് ആ നൃത്ത രൂപത്തിലോട്ട് ലയിച്ച് അവരുടെ നൃത്തരൂപത്തിൽ മാത്രം അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അവർ ആ നൃത്തരൂപത്തിൽ നിന്ന് ഒരുപാട് അവാർഡുകൾ പുരസ്കാരങ്ങൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വാങ്ങി അവർ ആ നൃത്തം എന്താണെന്നു ചോദിച്ചാൽ നൃത്തം എന്താണെന്നു ചോദിച്ചാൽ അവരുടെ ജീവിതം തന്നെ നൃത്തമായിരിക്കും അവർ ചെയ്യുന്ന ഓരോ ആംഗ്യങ്ങളും ഓരോ സ്റ്റെപ്പുകളും എല്ലാം അവരുടെ ശരീരവും എല്ലാം ആ നൃത്തത്തിന് അനുസരിച്ച് വഴങ്ങുന്നതും അത്ര ഭംഗിയേറിയതും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെയിങ്ങനെ ലയിച്ചിരിക്കുന്ന തരത്തിലുള്ള നൃത്ത രൂപങ്ങളായിരുന്നു അതുപോലെതന്നെ നാടോടിനൃത്തം നാടോടിനൃത്തമെന്നു പറഞ്ഞാൽ ഇന്നൊക്കെ വിരളമായിട്ടെ നാടോടിനൃത്തമൊക്കെ കാണുള്ളു നാടോടിനൃത്തമെന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ടും ഒരു നാടോടിനൃത്തമെന്നൊക്കെ കണ്ടാൽ ആ കണ്ടിരിക്കുന്ന ആൾ അത് ഒരാളുടെ അനുഭവങ്ങളുപോലെ അതൊക്കെ മതപരമായിട്ടും ഓരോ ആചാരങ്ങളുടെ ഇതിലായിട്ട് വരുന്ന നൃത്തങ്ങളായിരുന്നു ക്ലാസിക്കലും നാടോടിനൃത്തമൊക്കെ ആയിട്ട് നല്ല അതങ്ങനെ കണ്ടിരുന്നാൽ നമ്മളതിൽ ലയിച്ചു അത്രയേറെ ഭംഗിയേറിയ ആ അത് കണ്ടാൽ കണ്ണുനിറഞ്ഞ് കരഞ്ഞു ഓരോ അനുഭവങ്ങളിലൂടെ നമ്മളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള നൃത്തങ്ങളായിരുന്നു നാടോടിനൃത്തങ്ങൾ അതൊക്കെ ഇന്ന് വിരളമായിട്ടേ നമുക്ക് കാണാനുള്ളൂ അതിനൊക്കെ ഉപരി ഇന്നത്തെ ജനങ്ങൾ ഗാനമേള സിനിമ അങ്ങനെയുള്ള സംഭവങ്ങളിലോട്ട് വഴിമാറി അവരെ കൂടുതലും അതിനാണ് ഇഷ്ടവും താല്പര്യവും കൊടുക്കുന്നത് കഥകളി അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ തന്നെ ഇല്ല വിരളമായിട്ടെ കാണാൻ സാധിക്കുന്നുള്ളൂ